ആഹ് സാർ എനിക്കൊന്ന് മൂന്നാർ വരെ പോണമായിരുന്നു ആഹ് അപ്പോൾ എത്രയാണ് ചാർജ് സെവൻ സീറ്റ് കാർ ഇന്നോവ മതി ആഹ് എത്രയാണ് ചാർജ് വരിക ട്രാവലിങ്ങ് ചാർജ് ആഹ് ഓഫ് റോഡ് പോകണം ഓഹ് ഓക്കേ ഓക്കേ അതുമതി ഏതാണ് ഇതിന് കംഫർട്ട് എന്നു വച്ചാൽ അതു മതിയായിരുന്നു അതെയല്ലേ ആഹ്

ആഹ് ആഹ് ആഹ് അവിടെനിന്ന് നമുക്ക് മൂന്നാറിനും പിന്നെ ഒരു കുറച്ച് സ്ഥലവും കൂടി പോയി സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു ഒരു വൺ വീക്ക് ട്രിപ്പ് ആയിട്ടാണ് ഉള്ളത് ആഹ് ആഹ് അപ്പോൾ ഫുഡ്ഡ് നമ്മൾ പിന്നെ ഹോട്ടലിൽ പോകണം നിങ്ങളവിടെ ആഹ് ഓഹ് അങ്ങനെ ഉണ്ടോ ഓക്കേ ഓക്കേ ആഹ് അപ്പോൾ അതിന് എക്സ്ട്രാ ഫുഡ്ഡ് ആഹ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ വക കിട്ടും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും അല്ലേ ഓക്കേ ഓക്കേ ആഹ് അതായത് അതെ എത്ര നേരം ഉണ്ടാകും ഫുഡ്ഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഓക്കേ ഓക്കേ ആഹ് എന്തൊക്കെ ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുക ആഹ് ഓക്കേ നോൺവെജ് ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കേ ഓക്കേ ആഹ് മൂന്നാറിൽനിന്ന് പിന്നെ അടുത്ത് നല്ല ടൂറിസ്റ്റ് പ്ലേസ് വേറെ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയുമോ ആഹ് ഓക്കേ അത് അവിടെ ഓക്കേ ആഹ് അപ്പോൾ ഒരു വൺ വീക്ക് ഉള്ള ഒരു ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത്

ആഹ് ഓക്കേ അടുത്ത സൺഡേ മുതൽ സൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുക സൺഡേ ബുക്ക് ചെയ്യാൻ പറ്റുമോ ആഹ് ഓക്കേ എന്നാൽ അടുത്ത സൺഡേയ്ക്ക് ഒരു സെവൻ സീറ്റ് ബുക്ക് ചെയ്യണം പിന്നേ ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഓഹ് ശരിയാണല്ലേ ആഹ് ഏതൊക്കെ കളറാണ് ഉള്ളത് ആഹ് മോഡിഫൈഡ് സാധാരണ മതി മോഡിഫൈഡ് ചെയ്ത ടൈപ്പ് ആഹ് ഓക്കേ അങ്ങനെയാണെങ്കിലും മതി ഞാൻ അതൊന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിച്ചിട്ട് ഞാൻ താങ്കളെ അറിയിക്കാം ഓക്കേ ശരി താങ്ക് യു ഓക്കേ താങ്ക് യു ആഹ്